പാലക്കാട് ജില്ലയിലെ പ്രാദേശിക സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക്കുകളെല്ലാം ശേഖരിക്കുകയും അവയെല്ലാം സംസ്കരണ ശാലയിൽ കൊണ്ട് പോയി കൊടുത്ത് സംസ്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയും ചരിവ് പ്രദേശങ്ങളിലെല്ലാം ധാരാളം ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പുല്ലുകള് അതേപോലെ പൂച്ചെടികള് എല്ലാം സംരക്ഷി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മണ്ണൊലി ഒലിച്ച് പോവുകയുമില്ല പ്രകൃതിയിലെ പ്രകൃതിയെ കാണാൻ നല്ല ഭംഗിയുള്ളതാകും മാത്രമല്ല ചൂലന്നൂര് മയിൽ സങ്കേതത്തിന് പ്രത്യേക സംരക്ഷണ വലയം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ പ്ലാസ്റ്റിക് ഡപ്പകളോ ഒന്നും കടത്തി വിടാറില്ല മാത്രമല്ല അവിടെ പോകുന്ന വ്യക്തികളെ പ്രത്യേകം പ്രത്യേകം പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം മാത്രമാണ് മയിൽ സങ്കേതത്തിലേക്ക് കയറ്റി വിടുകയുള്ളു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കാട്ടിനകത്തേക്ക് വാഹനങ്ങൾ കയറ്റി വിടുന്നി വിടില്ല അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഖര മാലിന്യങ്ങളെല്ലാം സംസ്കരണശാലയിൽ കൊണ്ട് പോയി സംസ്കരിച്ച് അത് വേറെ പുതിയ വസ്തുക്കളാക്കി രൂപാന്തരപെടുത്തുന്നു ഇതെല്ലാമാണ് പാലക്കാട് ജില്ലയിൽ ചെയ്യുന്നത് കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം മരങ്ങളെല്ലാം റോഡ് സൈഡുകളില് വച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിനെ അതിനേക്കെ കൃത്യമായി സംരക്ഷണവും നൽകി വരുന്നുണ്ട്